ആ ഹലോ എന്താ ഇപ്പോൾ ആ ഇന്ന് മാർക്കെറ്റ് ഓപ്പൺ ആണേ പറഞ്ഞോളു ആ

ആ റെഡി ആക്കി വെക്കാം പ്പ രാ രാവിലെ തന്നെ കൊണ്ട് തന്നോളു ബില്ല് രാവിലെ തന്നെ കൊണ്ട് തന്നാൽ നമ്മളത് എടുത്ത് വെക്കാം സാധനങ്ങളെല്ലാം

ആ ആ അതിനെല്ലാം കുറച്ച് വില കൂടുതലാണ് ഇപ്പോൾ ആ അരിക്കിപ്പോൾ അയിമ്പത്തിരണ്ട് രൂപയാണ് പറയണത് ആ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് രൂപവരെയാണ് മുമ്പേ കൊടത്തോണ്ടായത് പിന്നെ ആ കൂടുതൽ പഞ്ചസാരയ്ക്കും ഇപ്പം വില കൂടി പഞ്ചസാരയ്ക്കും വില കൂടി ആ മുപ്പത്താറ് നാൽപ്പതോളം ഇല്ല ഇപ്പം ഓഫറൊന്നും ഇല്ലല്ലേ ഓഫറെല്ലാം എടുത്ത് കളഞ്ഞില്ലേ പത്ത് പതിമൂന്നോളം ഐറ്റം ഒഫറുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് കളഞ്ഞു റേഷൻ കാർഡിന് പതിമൂന്നോളം സാധനങ്ങളിങ്ങനെ കൊടുത്തോണ്ടുണ്ടായി ഇപ്പോൾ ഓഫറൊന്നും ഇല്ല ഇല്ലാ അപ്പം ഇപ്പൻ്റെ സാധനങ്ങളെല്ലാം വരുന്നതും കുറവ് തന്നെയാന്ന് ഒരു സാധങ്ങളിങ്ങനെ നമ്മളിപ്പം അത്യാവശ്യമായിട്ട് കിട്ടേണ്ട റേഷൻ ക റേഷൻ കാർഡിൽ കിട്ടുന്ന ഗുണഭോക്താക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് ഇല്തള്ളി ഇപ്പം കുറവാണ് ആ പത്തി പതിമൂന്നോളം ഐറ്റം വന്ന് ആ അതിനെല്ലാം മുമ്പേ ഉണ്ടായിരുന്നു ചെറിയൊരു തുക മാത്രം ആ മുമ്പത്തത്രെ ഇല്ലാ അത് അയിമ്പത്തഞ്ച് ശതമാനം കട്ടാക്കിയാന്ന പറയുന്നത് നമുക്കങ്ങനെ സാധനങ്ങൾ വരുന്നില്ല

അഞ്ഞൂറ് രൂപയിൽ കടന്നു ഇല്ലയില്ല അഞ്ഞൂറ് രൂപേടെ കടന്നു വെളുത്തുള്ളിക്ക് ആ എന്നായത്തിനൊന്നും ഓഫറൊന്നും ഇല്ല വെളുത്തുള്ളിയെല്ലാം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാം ആ എന്തായലും ഒന്ന് വന്ന് കാണ് ഓ പിന്നെ ഓഫറിലാന്ന് പറഞ്ഞിട്ട് കടകളിലേക്ക് വരണ്ട ഓ ആ ശരി ഓക്കെ